ആ ഹലോ ആ നമസ്കാരം എൻ്റെ പാൻ കാർഡില് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിൻ്റെ ഫോം എന്തൊക്കെയാണ് അതിൻ്റെ രീതികള് എന്തൊക്കെയാണെന്നെനിക്കൊന്ന് പറഞ്ഞുതരണം എനിക്ക് എൻ്റെ ആധാർ അല്ല എൻ്റെ പാൻ കാർഡില് ഒരു അപ്ഡേറ്റ് ചെയ്യണം അതായതെൻ്റെ ലാൻഡ്ലൈൻ നമ്പര് അതില് ചേർക്കണം അതിന് ഒരുപാട് പ്രോസിജിയറുണ്ടോ എനിക്ക് അതൊന്ന് പെട്ടെന്ന് ചെയ്ത് തന്നാല് വലിയ ഉപകാരമായിരുന്നു പിന്നെ ഫോം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ആ ഫോമില് ഞാൻ എന്തൊക്കെയാ ഫില്ലേയേണ്ടത് ഈ നാലു ഫോമും ഞാൻ ഫില്ലേയ്ത് തരണോ ജസ്റ്റ് ഈ നമ്പര് മാത്രം എനിക്ക് അപ്ഡേറ്റ് ചെയ്താല് മതി എൻ്റെ ലാൻഡ്ലൈൻ നമ്പര് പാൻ കാർഡിലൊന്ന് ചെയ്ത് തരണമെന്നേ ഉള്ളൂ കാരണം പഴയ നമ്പറെ എൻ്റെ കയ്യിന്നൊന്ന് പോയി അപ്പോള് എനിക്കിപ്പോള് പാൻ കാർഡ് വെച്ച് എന്തെങ്കിലും ചെയ്യുമ്പോള് ഒ റ്റി പി വരുന്നില്ല അപ്പോള് ആ പുതിയ നമ്പര് ആയാലല്ലേ അത് പറ്റത്തുള്ളൂ അപ്പോള് അതുകൊണ്ടുവേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് പെട്ടന്നൊന്ന് അതൊന്നു ചെയ്തുതരണം ഫോം ഞാൻ എത്രയും പെട്ടെന്ന് ഫില്ലേയ്ത് തരാം നാളെ തന്നെ എനിക്കത് ശരിയാക്കി കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ നിങ്ങളൊന്ന് വേഗത്തിൽ അതൊന്ന് ശരിയാക്കിത്തന്നാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു ആ എനിക്ക് എൻ്റെ ബാങ്കിലെ കുറച്ച് ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് അത്യാവശ്യമായിരുന്നു അപ്പോള് ഈ മൊബൈൽ നമ്പര് എനിക്ക് അതില് അപ്ഡേറ്റെയ്താൽ മാത്രമേ എനിക്ക് ബാങ്കില് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്ര ദിവസമെടുക്കും ഈ ഇത് ചെയ്ത് വരാൻവേണ്ടി മൂന്ന് ദിവസമെടുക്കുമോ അത് വളരെ കൂടുതലാണ് എനിക്ക് ഈ തിങ്കളാഴ്ചയ്ക്കകത്ത് അത് ചെയ്യണം ഇന്ന് തന്നെ ദാ വ്യാഴമായി എനിക്ക് ശനിയാഴ്ച എങ്കിലും അത് ചെയ്താലേ എനിക്കത് പറ്റത്തുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യുമോ എനിക്ക് നാളെത്തന്നെ ഒന്ന് ശരിയാക്കിത്തന്നാല് വലിയ ഉപകാരമായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ചെയുതുതരാൻ പറ്റുമോ എനിക്ക് ഇപ്പോള് എനിക്ക് മൂന്ന് ദിവസമൊക്കെ വളരെ പാടാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോള് തന്നെ എല്ലാം ഫില്ലേയ്ത് തരാം എനിക്ക് ഇന്നുതന്നെ ചെയ്തുതന്നാല് വലിയ ഉപകാരമായിരുന്നു പറ്റത്തില്ല ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല തിരക്കാണ് എനിക്കറിയാം നിങ്ങൾക്ക് തിരക്കാണെന്നെനിക്കറിയാം എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യുമോ പ്ലീസ് എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ ഒരു പ്രത്യേക കൺസേൺ എനിക്ക് തരണം എനിക്കത് അത്യാവശ്യമായതുകൊണ്ടാണ് ബാങ്കിലെ കാര്യങ്ങളെ എൻ്റെ മോൻ്റെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടാണേ അപ്പോള് എൻ്റെ പാൻ കാർഡ് അവിടെ നമ്പര് കൊടുക്കണം സംഭവം ഇപ്പോള് നിലവിൽ ഒ റ്റി പി ഒന്നും വരുന്നില്ല മോന് പാൻ കാർഡ് ഇല്ല എൻ്റെ പാൻ കാർഡ് വെച്ച് ഞാനാണ് ലോൺ എടുത്ത് കൊടുക്കുന്നത് അപ്പോള് അതൊന്നെനിക്ക് ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് കാരണം മോന് എഡ്യൂക്കേഷൻ ലോണ് എടുത്താല് മാത്രമേ അവന് ഈ ഈ മാസം തന്നെ കോളേജില് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത് മോൻ്റെ പേരിലല്ല എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു ഒരു ഫോൺ നമ്പർ അപ്ഡേറ്റേയ്യാൻ നാല് ഫോം ഫില്ലേയ്ത് തരണോ ഒരു ഫോം ഞാൻ വിചാരിച്ചു ഒരു ഫോം ഫില്ലേയ്താല് മതി എന്ന് ഞാൻ നിങ്ങളുടെ ഹയർ ഓഫീസർ ആരെടത്തെങ്കിലും സംസാരിച്ച് എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് തരാൻ പറ്റുമോ നിങ്ങള് എനിക്ക് അവരുമായിട്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യമുണ്ടാക്കിത്തന്നാല് വലിയ ഉപകാരമായിരുന്നു നമസ്കാരം നമസ്കാരം സാറെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് തരാൻ പറ്റുമോ എൻ്റെ ഫോൺ നമ്പര് മാത്രമൊന്ന് അപ്ഡേറ്റ് ചെയ്താല് മതി പഴയ നമ്പര് എൻ്റെ കയ്യില്നിന്ന് പോയി അതുകൊണ്ടാണ് മകന് ഒരു ലോണ് അവന് ഒരു എഡ്യൂക്കേഷൻ ലോണ് ഞാൻ കൊടുത്തിരുന്നു എൻ്റെ പേരിലാണ് ലോണെടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റിയാല് അത്രയും ഉപകാരം